ഞങ്ങളുടെ പ്രദേശത്ത് പല രീതിയിലുള്ള നാവില് കൊതിയൂറുന്ന തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ചക്കപ്പുഴുക്കാണ് ചക്കപ്പുഴുക്ക് ചക്കയപ്പം ഇലയട ഇലയപ്പം പിന്നീട് പിന്നീട് ചീനി അങ്ങനെ പലരീതിയിലുള്ള ആഹാരങ്ങളും പരമ്പരാഗതമായി ഉണ്ടാക്കാറുണ്ട് പിന്നീട് പരമ്പരാഗതമായി ഉണ്ടാക്കിവരുന്ന ഈ ആഹാരങ്ങൾ ഇപ്പോൾ പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് വരികയാണ് ഓര്ക്കുമ്പോള്ത്തന്നെ നാവില് രുചിയൂറുന്ന രീതിയിലും കാതിന് കുളിര്മയും കണ്ണിന് കാതിനും കണ്ണിനും കുളിര്മയേകുന്ന തരത്തിലുള്ള ഭക്ഷണവിഭവങ്ങളാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാക്കാറുള്ളത് അതിലെ ഇപ്പോഴും നാവിൻതുമ്പില് നിൽക്കുന്ന ഒരു ആഹാരമാണ് കപ്പ കപ്പ അഥവാ ചീനി എന്ന് പറയുന്നത്